ഇപ്പോഴത്തെ യുവാക്കക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല അത് കാണെക്കാണെ എമ്മെ ഒന്നാമത്തെ കാര്യം അവർ ഇരുന്ന് പഠിച്ചു ടെസ്റ്റുകൾ എഴുതിയാലും ഇപ്പോൾ ഈ ഉയർന്ന ജാതിയെന്നു ഒരു ഇതൊള്ളോണ്ട് നായേഴ്സിനോ അതെപോലെ ക്രിസ്ത്യൻസിനും കൂടിയ ഇതുണ്ട് അതെപോലെ തന്നെ ബ്രാഹ്മിൻസിന് ഇവർകൊക്കെ മറ്റുള്ള ഇവരെക്കാട്ടിയും മാർക്ക് കിട്ടിയാൽ പോലും ഇവർ നിലവാരം ഈ വിദ്യാർത്ഥിയുടെ നിലവാരം കൊണ്ട് തേണം അവർക്ക് മറ്റവർക്ക് മുപ്പത് ആണെങ്കിലും ഇവർക്ക് എൺപത് കിട്ടിയാൽ പോലും മുപ്പത് കിട്ടിയ ഒരു വ്യക്തിയ്ക്ക് ജോലി കിട്ടിയാലും ഇവർക്ക് കിട്ടൂല ഇവർക്ക് അതാന്ന് താഴ്ണ അത് ഭയങ്കര ഒരു ഇതാണ് അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം ഈ ഇവർ ഇത്രയും ജാതിയുടെ ഒരു പേരും പറഞ്ഞു ഉയർന്ന ജാതി എന്നും പറഞ്ഞു കൊണ്ട് ഇവരെ മാർക്കിൻ്റെ ഇത് മറ്റവർക്ക് താഴ്ന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയും ഉയർന്ന ജാതിക്കാർ അവരെ വീട്ടിൽ ഒരു നേരം കഞ്ഞി വയ്ക്കാൻ പോലും നിവർത്തിയില്ലാത്ത വീട്ടിലെ കുട്ടികളാണ് പഠിച്ചു ഇത്രയും മാർക്ക് വാങ്ങിക്കണ പഷെ അതാരും ചിന്തിക്കുന്നില്ല അവർ ഉയർന്ന ജാതിയെന്നുള്ള ഒരു നിലപാടിൽ അവഋക്ക് ജോലി കിട്ടാറില്ല മിക്കവാറും എൻ്റെ മോൻ തന്നെ പറയും മിക്ക പരീക്ഷയും അവൻ പറയും എളുപ്പമാണ് പഷെ അമ്മ ഞാൻ നിങ്ങൾ നായരാണ് നമക്ക് കിട്ടണാര്യം പാടാണ് മറ്റെ അവൻ്റെ കൂടെ ഒരുപാട് പേര് ടെസ്റ്റ് എഴുതിയ താഴ്ന്ന ജാതിയിലുള്ള ഒരുപാട് പേർക്ക് ലിസ്റ്റിലുണ്ട് പക്ഷെ അവൻ പറയണ് അമ്മാ നമുക്ക് ഉയർന്ന ജാതി ആയത് കൊണ്ട് കിട്ടണില്ല എനിക്ക് ഇത്രയും മാർക്കുണ്ട് പക്ഷെ കിട്ടണില്ല ഇങ്ങനെ ഇനിയും ഇങ്ങനെ വരുമ്പോൾ ഇവരെ വയസ്സ് ഓവറായി പോകുകയാണ് അതുകൊണ്ട് ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള ഒരു ഇത് നിലവാരം മാറ്റി എല്ലാം മാറി പഠിക്കാൻ കഴിവുള്ള കുട്ടി മാർക്ക് കൂടുതലുള്ള കുട്ടിക്കും ജോലി അവസരം ലഭിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരും അവരെ വീട്ടിലും ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമായിരിക്കും ചില ബ്രാഹ്മിൻസ് കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ആ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് ഒരു നേരത്തെ ചോറ് കാഞ്ഞ് ഉച്ച ഒരു നേരത്തെ ആഹാരം കഴിക്കാം പോലും വയ്യ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനവിൽ പക്ഷെ അവർക്ക് ഗുളികയും ഇതും വാങ്ങിച്ചു അവരൊക്കെ ഇല്ല പക്ഷെ ആ കുട്ടി നല്ല പഠിക്കും എത്രയോ എടുത്ത് പോയി ടെസ്റ്റ് എഴുതി ഒന്നുമില്ല ഇപ്പം അതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അതിന് വയസ് ഓവറായി ജോലി കിട്ടി പക്ഷെ അത് അന്ന് നേരത്തെ പോയിരുന്നുവെങ്കിൽ അതിന് നല്ല വേറെ എവിടെ എങ്കിലും പ്രൈവറ്റിൽ നല്ല ശമ്പളം കിട്ടുവാൻന് ഇപ്പം ഇപ്പം പ്രായമായി പോയി അന്നൊക്കെ ജോലി കിട്ടും നല്ല മാർക്ക് കിട്ടി

പിന്നെ ഇത് പിന്ന വൈകല്യമുള്ള കുട്ടികൾക്ക് കൊടുക്കണം അത് അത് നല്ലതാണ് അവർക്കും ജീവിക്കണം

ഇന്ന് കഷ്ടം തന്നെ എത്ര പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇല്ലെങ്കിൽ വെളിയിൽ രാജ്യങ്ങളിൽ പോകണം അതിന് നിവർത്തി പത്തും പന്ത്രണ്ടും ലക്ഷം രൂപ ചിലവാക്കി ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്തു പോയാൽ അവിടെ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രമാണം വച്ചു എൻ്റെ വീട്ടിന് അടുത്തുള്ള ഒരു കുട്ടി പ്രമാണം വച്ചാണ് പോയത് പക്ഷെ അവന് അത്ര പഠിത്തവും ജോലി ആയിരുന്നു അവന് അത് മെച്ചപ്പെട്ടില്ല പക്ഷെ ഇപ്പം ദാ ജപ്തി നോട്ടീസ് വന്നു കെടക്കണ് അതാ ഇത് ഭയങ്കര ഒരു ഇതാണ്